ആരെങ്കിലും അങ്ങനെ കായിക നിയമങ്ങൾ ലംഘിച്ചാൽ ആ ലംഘനത്തിന് എതിരായി ആ ഒരു ലംഘനത്തിന് എന്താണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഒരിക്കലും അത് നടക്കാൻ പാടുള്ളതല്ല ഒരു കായിക നിയമം അല്ലെങ്കിൽ ഒരു കായികത്തിന് അല്ലെങ്കിൽ ഒരു സ്പോർട്സിന് നമുക്കൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം സ്പോർട്സിൽ പ പങ്കെടുക്കുന്ന എല്ലാവരും കായിക മേഖലയിലുള്ള മേഖലയിലുള്ള എല്ലാവരും അനുസരിക്കേണ്ടതാണ് അതിന് വേണ്ടിയാണ് നമ്മൾ നിയമം ഇറക്കുന്നതും അത് പാലിപ്പിക്കുന്നതും ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് അതിന് നമ്മൾ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അതിന് വളം വെച്ചുകൊടുക്കുന്നത് പോലെയാണ് അതിൻ്റെ പെരുമാറ്റം അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ണടച്ച് ഇരുന്നുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മേഖലയോട് തന്നെ ഒരു ആ ചെയ്യുന്ന ഒരു ബഹുമാനക്കുറവ് ആയിപ്പോവും നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പെരുമാറ്റ ചട്ടം ലംഘനം ഉണ്ടായാൽ നമ്മൾ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കും അതിനൊരു മാറ്റവും ഇല്ല അതിപ്പോൾ വലിയവൻ ആണെങ്കിലും ചെറിയവൻ ആണെങ്കിലും ആ ഒരു ലംഘനത്തിന് ഉതകുന്ന ശിക്ഷ നമ്മൾ അതിന് കൊടുത്തിരിക്കും അതിനൊരു മാറ്റവുല്ല അത് ഉണ്ടാവുന്നതാണ്